എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരൻ യേശുദാസാണ് യേശുദാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ വ്യക്തിത്വം വ്യക്തിത്വം തന്നെ നമ്മളെ മാന്ത്രികവും മനസ്സിന് കുളിർമ ഏകുന്നൊരു വ്യക്തിയുമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടും സംവിധാനങ്ങളും ഒക്കെ ലോക ജനങ്ങൾക്കിടയിൽ അതായത് കേരളം മക്കൾക്ക് വളരെ പ്രചോദനം നൽകിയൊരു വ്യക്തി സംഗീതത്തിൻ്റെ സംവിധായകൻ സംഗീത സംവിധായകനെന്ന് വിശേഷിപ്പിക്കുവാൻ ആ അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ താളങ്ങളും മേളങ്ങളും ഉച്ചാരണങ്ങളും അതിൻ്റെ ഒരു പാട്ടിൻ്റെതായ എല്ലാ അർത്ഥങ്ങളും വ്യാകരണങ്ങളും എല്ലാം നിറഞ്ഞ ഒരു പാട്ടുകാരൻ സ്വരമധുരമേറിയ പാട്ടിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന വ്യക്തി ഒരു സംവിധായകൻ ഒരു പുള്ളിയുടെ പാട്ടും പുള്ളിയുടെ പാടുന്ന ആ സൗണ്ട് പോലും മറ്റുള്ളവർക്ക് സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം കൊടുക്കുന്നൊരു വ്യക്തി വ്യക്തി ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമ തോന്നും അങ്ങനെ അങ്ങനെ അങ്ങനെ കുളിർമയേറിയ ജീവിതം ആണ് ആ വ്യക്തിയിലൂടെ ആ വ്യക്തിയിൽ വ്യക്തിയിലൂടെയാണ് വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം തോന്നുന്നു അങ്ങനെ നമ്മൾ ആ വ്യക്തിയെ അതിനാൽ തന്നെ യേശുദാസിനെ ലോകജനത ആദരിക്കുകയും ആസ്വദിക്കയും അംഗീകരിക്കയും ചെയ്യുന്നു ആ മനുഷ്യനെ ഇഷ്ടപ്പെടാനുള്ള ആ മധുരമേറിയ സൗണ്ട് ആ മാധുര്യം നിറഞ്ഞ ചിരി മറ്റുള്ളവരെ ആ ആ ചിരിയിലൂടെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം ഒരു നല്ല വ്യക്തിത്തിൻ്റെ ഉടമ എന്ന നിലയിൽ ആ വ്യക്തിയുടെ പാട്ടും പാട്ടിലൂടെ ആ ഇപ്പം പുള്ളി ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളിലൂടെയും പാട്ടിലൂടെയും അർത്ഥങ്ങളും അനുഭവങ്ങളും നിറഞ്ഞ ഓരോ മനുഷ്യനെ ആ ജീവിക്കണം അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു രീതിയിലുള്ള ഓരോ പാട്ടും പുള്ളിയെ ദൈവീകമായ ഒരു ഭക്തി ആ ഭക്തി ഗാനത്തിലൂടെയും ഭക്തി ഗാനത്തിലൂടെ ദൈവത്തിലേക്ക് അടുക്കുവാനും ദൈവികത ഉളവാക്കാനും ഒക്കെ പറ്റിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ആ വ്യക്തിയെ വളരെ ലോക ജനം ആദരിക്കുകയും ആദരിക്കുകയും ആസ്വദിക്കയും ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ അത്ര നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ലോകജനം ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം മാധുര്യമായ സൗണ്ട് അത്ര നല്ല അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും മഹത്തായ ഘടന സൗണ്ടിലൂടെ ഓരോ ഓരോ വാക്കുകളും പ്രചാരങ്ങളും വരുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ആ മാധുരിത അവസ്ഥയെ ആസ്വദിക്കുന്ന ജനത എല്ലാം മറന്ന് പാട്ടു കേട്ട് മണിക്കൂറുകൾ ചിലവഴിക്കുന്നു ഒരു ഘാടമായ നിദ്രയിലേക്ക് കടന്നു പോകുന്നു ആ ഒരു സംവിധാനത്തിൻ്റെ ഉടമയായ വ്യക്തിയായ യേശുദാസിനെ എല്ലാവരും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു